പുതിയ ജനറേഷനിൽ ഓരോ കളികളും കാണാത്ത ആൾക്കാർ കുറവായിരിക്കും ഓരോ രീതിയിൽ ഉള്ള കളികളോട് ഓരോരുത്തർക്കും കമ്പം ഉണ്ടാകും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ക്രിക്കറ്റ് ആണെങ്കിലും ഫുട് ബോൾ ആണെങ്കിലും അങ്ങനത്തെ വേറെ വേറെ രീതിയിലുള്ള ഇതുണ്ടാകും വേറെ മൊത്തം ജീവിതം മൊത്തത്തിൽ വ്യത്യാസമായിട്ടുണ്ടാകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്നത് ഇത് ചെയ്തൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതൽ ഉള്ളത് അപ്പം ഇനി നമ്മളിങ്ങനത്തെ ഓരോ കളികളിൽ ഒക്കെ കാണുമ്പോഴും ഉറപ്പ് നമ്മളൊക്കെയായിട്ട് നമ്മുടെ മൈന്റും ഇതൊക്കെ വേറെ വ്യത്യാസമായിരിക്കും അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിക്കുന്ന ഒരു ഇതുതന്നെ കണ്ടിട്ടില്ലേ എന്തു വർക്ക് ചെയ്യുന്നവർ തന്നെ ഉണ്ടാകും എന്ന് ഓരോ കളിയിൽ ഇതാക്കുന്നു ഓരോ കളില് ജോയിൻ ചെയ്തവരുണ്ടാകും അത് അവരുടെ ജീവിതത്തിന് നല്ല മാറ്റം തന്നെ വരുത്തും എന്നുവെച്ചുകഴിഞ്ഞാൽ അവരെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ചിലർ തന്നെ കളികളിലൂടെ ചിലർ വേറെ രീതിയിൽ തന്നെ എത്തും ആ കളികളിലൂടെത്തന്നെ ആ കളികൾ സ്വാധീനിച്ചു തന്നെ നമുക്ക് ഓരോ പൊസിഷനിൽ എത്താൻ പറ്റും കളികളെ സ്വാ എന്താ പറയുക ആ കളികൾ കണ്ടിട്ടും ഓരോ കളികൾ കണ്ടിട്ടൊക്കെ കയറ്റി ആ രീതിയിലൊക്കെ എത്താൻ സഹായിക്കുന്നവരുണ്ട് അങ്ങനെ കുറേ പേരുടെ ജീവിതം മാറിയവരുണ്ട്